ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള അയൽവക്ക പ്രശ്നങ്ങളും വഴി പ്രശനങ്ങൾ വെള്ളം പ്രശ്നങ്ങൾ അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് പരസ്പരം ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അവിടെ പറ്റാതെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വാർഡ് മെമ്പറായിട്ടും പള്ളി വികാരിയായിട്ടും അങ്ങനെ ഒക്കെ മധ്യസ്ഥർ മധ്യസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുകേം പരിഹാരം കാണാൻ ശ്രമിക്കുകേം ചെയ്യുന്നു പലപ്പോഴും രമ്യതയിൽ തന്നെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാറുണ്ട് അപൂർവ്വ സന്ദർഭങ്ങളിൽ അങ്ങനെ പറ്റാതെ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങനെ വന്ന് കഴി പഞ്ചായത്ത് ഇടപെട്ടാലും തീരാത്ത വഴി പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അവിടെ അതിൻ്റെ മുകളിലേക്ക് പോവേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനൊക്കെ വരുമ്പോൾ പരമാവധി രമ്യ ഐക്യത്തോടെ പോവണമെന്നുള്ള ആഗ്രഹം ഉള്ളതു കൊണ്ട് വിട്ട് വീഴ്ച മനോഭാവത്തോടെ പ എല്ലാവരും ഓരോ പ്രശ്നങ്ങളെയും സമീപിക്കാറുണ്ട് സമീപിക്കുന്നുണ്ട് അങ്ങനെ പലപ്പോഴും രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കാൻ സാധിക്കുന്നുണ്ട് അപൂർവം ചിലതെങ്കിലും രമ്യതയിൽ എത്താതെ വലിയ വഴക്കിലേക്കും പ്രശ്നങ്ങളിലേക്ക് ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പോലീസും കേസും ഒക്കെ ആകാറുണ്ട് അങ്ങനെ ആയി അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും ധനനഷ്ടവും മാനഹാനിയും ഒക്കെ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നു ഒരു നിത്യ ശത്രുതയിലേക്ക് അങ്ങനെ സംഭവങ്ങൾ മാ വഴി മാറുന്നതും കാണാറുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെയോ യോജിച്ചോ ആണ് മുന്നോട്ട് പോകുന്നത് അപൂർവം ചിലയിടങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ തർക്കങ്ങൾ പരമാവധി ഉണ്ടാകാതെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമങ്ങളാണ് അയൽവാസികൾ തമ്മിലും നടത്തുന്നത് നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു പരിധി വരെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് തള്ളിക്കളയും പിന്നെ സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാലാണ് അത് പ്രശ്നങ്ങളായി മാറുന്നത് അങ്ങനെ വരുമ്പോൾ അയൽവാസികള് മറ്റ് അയൽവാസികളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരെങ്കിലും ഒക്കെ ഇടപപ്പെട്ട് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കാണാനായിട്ടാണ് ശ്രമിക്കുന്നത് ഒട്ടു മിക്ക സന്ദർഭങ്ങളിലും സമാധാനപരമായിട്ട് തന്നെ പ്രശ്നം പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അതിലും ഒത്തിരി സന്തോഷം ഉണ്ട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ കാര്യങ്ങളെ ലഘൂകരിച്ച് കാണിക്കുന്നതിനും അങ്ങനെ പ്രശ്നം പരിഹാരം കണ്ടെത്തുന്നതിനും പരമാവധി ആളുകൾ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു സന്നദ്ധത ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതുതന്നെ വലിയൊരു നേട്ടം ആണ് ഇങ്ങനെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മറ്റുള്ളവരെ ഒരു നിമിഷം കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് വിശ്വാസം അങ്ങനെ പ്രശ്നം പരിഹാരം പ്രശ്നങ്ങളെല്ലാം ഒരുവിധത്തിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ പറ്റുന്നുണ്ട് ഒത്തിരി സന്തോഷം ഉണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പരമാവധി ശ്രദ്ധിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുവാനാണ് എല്ലാരും ശ്രമിക്കുന്നത് ആ അക്കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കുവാനും സാധിക്കുന്നുണ്ട് നന്ദി